ഹലോ റെസ്റ്റോറൻ്റല്ലേ ഞാനിവിടെ ഭക്ഷണം ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കിട്ടീട്ടില്ല ഇതുവരെ എന്ന് മാത്രമല്ല ഞാനിവിടെ ജോലി സ്ഥലത്തായത് കൊണ്ട് എനിക്ക് ഭക്ഷണത്തിൻ്റെ ഒപ്പം ഓരോ പ്ലേറ്റോ ഗ്ലാസ്സോ കിട്ടിയെങ്കിൽ വലിയ ഉപകാരം ആയിരുന്നു ആ പ്ളേ ആ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് അതിൻ്റെ പൈസ എന്താന്ന് വച്ചാൽ തരാം എന്ന് മാത്രമല്ല ഡിസ്പോസിബിൾ പ്ലേറ്റ് ഫോർക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വളരെയധികം സഹായായിരുന്നു അല്ല വേണ്ട വേണ്ട വേണ്ട റെസ്റ്റോറന്റ് ആ ഫുഡ് കൊണ്ട് വന്നോളൂ അതിൻ്റെ ഒപ്പം ഡിസ്പോസിബിൾ പ്ലേറ്റും ഇതും വേണം ഇല്ലെങ്കിൽ അത് കഴിയില്ല എന്ന് മാത്രല്ല നമുക്ക് ജോലിസ്ഥലത്തല്ലേ എന്ന് മാത്രം അല്ല ജോലിസ്ഥലത്തായത് കൊണ്ട് തന്നെ അവിട്ന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പ്ലേറ്റും ഗ്ലാസും സ്പൂണും ഫോർക്കെക്കെ വേണമെന്ന് പറഞ്ഞത് ഇല്ല ഞങ്ങൾക്ക് ഫുഡ് അത് തന്നെ മതി ഫുഡിന് വേറെ ചേഞ്ചൊന്നും വേണ്ട കപ്പും ഡിസ്പോസും അതിൻ്റെ പൈസ എത്രയാന്ന് വച്ച് കഴിഞ്ഞാൽ തരാം